ഇപ്പം എൻ്റെ കാര്യം എടുത്താൽ ഒഴിവു സമയങ്ങളിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇപ്പം ഞാൻ ചെടികൾ പിടിപ്പിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ മറ്റു വീട്ടിലെ കാര്യങ്ങളും വീട്ടിൽ ചെടികൾ പിടിപ്പിക്കുക പാട്ടുകൾ കേൾക്കുക അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ അതാണ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് അടുത്തുള്ള ജിമ്മിൽ പോകും അവിടെ ചെന്നു ഞാൻ വർക്ക് ഔട്ട് ചെയ്യുക അവിടത്തെ വർക്ക് അവിടെ ചെന്ന് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു രണ്ട് രണ്ടര മണിക്കൂറിനടുത്ത് ഞാൻ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് പിന്നെയും അപ്പം അങ്ങനെ നമുക്ക് ഒരു സമയത്ത് ഒഴിവു സമയങ്ങളിൽ ഒരു ദിവസം ഒഴിവു സമയം കിട്ടുകയാണെങ്കിൽ പാട്ടുകൾ കേൾക്കുക വീട്ടിൽ ചെടികൾ നട്ടു പിടിപ്പിക്കുക വീട് കുറച്ചും കൂടി സുന്ദരമാക്കുക പിന്നെ ജിമ്മിൽ പോവുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ ഒഴിവു സമയങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ചെയ്തു വരാറുള്ള കാര്യങ്ങൾ അപ്പം എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്